എല്ലാ കർഷകരും തങ്ങളുടെ മൃഗങ്ങളെ സുരക്ഷിതമായും മാനുഷികമായും സംസ്കരണ സഹായങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവയ്ക്ക് മതിയായ പരിചരണങ്ങളും പിന്നെ അവയ്ക്ക് ആവശ്യമായ സ്ഥലങ്ങളും പാർപ്പിടവും എല്ലാം കർഷകർ തന്നെ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള കൂടുതൽ ഭാഗവും നമുക്ക് അറിയാൻ പറ്റുന്നത് അതുപോലെ തന്നെ എന്നാൽ അതിനെ നല്ലതുപോലെ നോക്കാതെ നല്ലതുപോലെ പരിചരിക്കാത്ത ആൾക്കാരും ഇന്ന് കർഷകരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന ഒന്നാണ് അതിനെ ഉപദ്രവിക്കുക അതിന് ആവശ്യത്തിന് വെള്ളം ആഹാരം ഒന്നും കൊടുക്കാതിരിക്കുക എവിടെയെങ്കിലും മഴയത്തും അല്ല വെയിലത്തും ഒക്കെ ആയിട്ട് അതിനെ കിടത്തുക അതിനെയും കൊണ്ട് അമിതമായ ജോലി എടുപ്പിക്കുക എന്നുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും പലതര കർഷകന്മാ കർഷകരും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ ഇതിൽപ്പെടാത്ത നല്ല രീതിയിൽ മൃഗ സാ മൃഗങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന കർഷകരും നമ്മുടെ ഇടയിലുണ്ട് അതിനെ മാത്രം ജീവിതമാർഗ്ഗമാക്കി ഈ മൃഗങ്ങളെ മാത്രം ജീവിതമാർഗ്ഗമാക്കി മുന്നോട്ട് പോകുന്ന കർഷകരാണ് മിക്ക ഗ്രാമപ്രദേശങ്ങളിലും ഉള്ളത് കന്നുകാലി വളർത്തലും ആട് വളർത്തലും അതുപോലെ തന്നെ പിന്നെ ഈ കണ്ടം പൂട്ടാൻ ഉപയോഗിക്കുന്ന കാളയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഇവയൊക്കെ ഉപയോഗിക്കുന്നത് മ് കർഷകർ അവരുടെ മൃഗങ്ങളെ ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ മറ്റൊരു മറ്റ് നായകളെയും ഈ കഴുത കുതിര ഇങ്ങനെയുള്ള മൃഗങ്ങളെയും എല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട് അതിനും പലതരത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടി അവർ അതിനെ ഉപയോഗിക്കുന്നു എന്നാൽ നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന കർഷകർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതുമാണ് അതുപോലെ തന്നെ മൃഗങ്ങളെ നല്ലതുപോലെ നല്ലതുപോലെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകർ നമ്മുടെ ഇടയിൽ തന്നെ ധാരാളം ആയി കണ്ടുവരുന്നുണ്ട് പിന്നെ കർഷകർ തങ്ങളുടെ മൃഗങ്ങളെ പരമ പരമാവധി സുരക്ഷിതമായിട്ട് തന്നെ വളർത്തും വളർത്തി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളിൽ ചുറ്റുപാടും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് കാരണം അവയെ ഒരു ജീവിതമാർഗ്ഗമാക്കി മാറ്റുന്ന ധാരാളം കർഷകർ നമ്മുടെ ചുറ്റും ഇന്ന് ഉണ്ട് അവയെ പരിപാലിക്കുന്നതിനും ആഹാരം കൊടുക്കുന്നതിലും കുളിപ്പിക്കുന്നതിനകത്തും അവയെ ര പിന്നെ മഴയത്തുനിന്നും വെയിലത്തുനിന്നും സംരക്ഷിക്കുന്നതിലും ഒക്കെ അവർ ഏറെ ശ്രദ്ധ ചെലുത്തുന്ന ഒന്നായി മാറിയിട്ടുണ്ട് പിന്നെ എങ്ങനെ കുളിപ്പിക്കാനാണ് മതിയായ സ്ഥലവും വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളും അവയെ കൂടുതൽ പണി എടുപ്പിക്കാതെ നല്ലതും പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ കണ്ട് വരുന്നുണ്ട് എന്നാൽ ഇതിനും അല്ല വളരെ വിപരീതമായ രീതിയിൽ സം പിന്നെ വിപരീതമായ രീതിയിൽ മുന്നോട്ട് ഇ ഇതിനെ വളർത്തുകയും അതിനെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് ഒറ്റ പണം ലാഭത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു ഇവയെ പരിപാലിക്കാതെ പണത്തിൻ്റെ ലാഭത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകരായ ആൾക്കാരും നമ്മുടെ ഇടയിലൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാം പക്ഷേ ഏറെക്കുറേ ആൾക്കാർ ഇതിനെ വരും ഒരു വരുമാന മാർഗ്ഗം എന്നതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുപാടും കാണാം അവയ്ക്ക് ആവശ്യമായ സ്ഥലങ്ങളും അതായത് പാർപ്പിടങ്ങൾ പോലെ അതായത് ഇപ്പോൾ കന്നുകാലിക്ക് കിടക്കാനുള്ള ആവശ്യമായ സ്ഥലങ്ങൾ അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം വെള്ളം പിന്നെ അതിനെ വൃത്തിയാക്കൽ അതിന് ആവശ്യമായ പുല്ല് മറ്റ് കാര്യങ്ങളെല്ലാം അതേതായ പരിപാലിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ആൾക്കാരുടെ നമ്മൾ കർഷകർ നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ അതിന് അവർക്ക് അതെല്ലാം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു സർക്കാരും നമ്മുടെ നമ്മളിൽ കാണാം ആവശ്യക്കാരിൽ നിന്നും പലതരത്തിലുള്ള സഹായങ്ങളൊക്കെ കിട്ടി ഇതിനെ പരിപാലിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ചില ആൾക്കാർ ചില കർഷകർ ആൾക്കാരും ചില കർഷകർ ഇതിനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ടും നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്